ഞാൻ എനിക്ക് ഫോട്ടോഗ്രഫിയും ഫോട്ടോസും നല്ല നല്ല ഫോട്ടോസൊക്കെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ടെങ്കിലും എനിക്കങ്ങനെ കാര്യമായി നല്ല രീതിയിൽത്തന്നെ ഫോട്ടോ എടുക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി അല്ല ഞാൻ അതിനാൽത്തന്നെ പ്രാദേശികമായതാകയോ സംസ്ഥാന തലത്തിലെയോ ദേശിയ തലത്തിലെയോ അന്താരാഷ്ട്ര തലത്തിലെയോ ഫോട്ടോഗ്രഫി മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എനിക്കത്രമേൽ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കുവാനായിട്ട് അറിയാറില്ല പക്ഷെ അത് ഫോട്ടോ എടുക്കാൻ അറിയാവുന്ന ഫോട്ടോഗ്രഫിയോട് താല്പര്യമുള്ള ആൾക്കാര് എനിക്ക് ഐ തിങ്ക് അതിനായി നല്ലവണ്ണം ഒരുങ്ങണം നല്ല രീതിയില് പ്രാക്ടീസ് ചെയ്യണം കാരണം ഓരോ ഫോട്ടോസിനും ഓരോ ഫോട്ടോസിനും അതിന്റെതായ ഭംഗി തരുന്നത് അതിൻ്റെ ആംഗിള് അത് ഫോട്ടോസ് എങ്ങനെ അട്രാക്റ്റെയ്യുന്നു ഒരാളെ എങ്ങനെ ഫോട്ടോ അട്രാക്റ്റെയ്യുന്നു ഫോട്ടോയിലേക്ക് ആ ഫോട്ടോയിലുള്ളിലെ തീമിലേയ്ക്ക് കാഴ്ചക്കാരെ നയിക്കത്തക്ക രീതിയില് വേണം ഫോട്ടോ എടുക്കുന്നയാള് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യാന് അപ്പോള് അതിനൊക്കെ കഴിവും ചിന്താശേഷിയും ഒക്കെയുള്ള നല്ല തീമുള്ള നല്ല ഐഡിയാസുള്ള ആൾക്കാരുവേണം ഫോട്ടോ എടുക്കാനായിട്ട് പിന്നെ എല്ലാം നല്ല രീതിയിൽ അറിയണം ലൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ അറിയാവുന്നവരുവേണം ഫോട്ടോ എടുക്കാനായിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു നല്ല ഉള്ള നല്ല വലിയ വലിയ മത്സരങ്ങളില് പങ്കെടുക്കാൻ നേരം ഐ തിങ്ക് നല്ല ക്യാമറ നല്ല ക്വളിറ്റിയുള്ള ഏത് ദൂരം വേണെങ്കിലും കവറെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്യാമറയുള്ളൊരു ഫോൺ ഐ തിങ്ക് ബേസിക്കായിട്ട് വേണമെന്ന് തോന്നാറുണ്ട് എന്നുവച്ചാല് അത്ര വാല്യൂ ഉള്ള ഫോണോ ക്യാമറാസോ ഒന്നും വേണമെന്നല്ല എന്നാലും നല്ലരീതിയില് കുറച്ചൊക്കെ പിക്സൽസുള്ള നല്ല രീതിയില് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ഷെയ്ക്കിങ്ങില്ലാത്ത ലൈറ്റിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്യാമറയുണ്ടെങ്കിൽ പങ്കെടുക്കാം എനിക്ക് എനിക്ക് എനിക്ക് ഫോട്ടോയെടുക്കാൻ അറിയാത്തതുകൊണ്ട് അതല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ഫോട്ടോഗ്രഫി മത്സരത്തില് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല